മലയാള ഭാഷയുടെ ഉപജ്ഞാതാവ് നമ്മടെ എഴുത്തച്ച എഴുത്തച്ഛനാണ് അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും അറിയത്തില്ല എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് പിന്നെ മലയാള ഭാഷ ഓരോ കാലഘട്ടത്തിലും ലിപികൾക്കാണെങ്കിലും അക്ഷരം അക്ഷര ശുദ്ധി വരുത്ത് ഇങ്ങനെ വരുത്താൻ വേണ്ടി ലിപികളൊക്കെ മാറ്റി എഴുതും മാറ്റി എഴുതി വരുന്നുണ്ട് പഴയ അക്ഷര ലിപികളല്ല ഇപ്പോൾ പുതിയ ലിപി സിലബസ്സിൽ ലിപികളായിട്ട് വന്നിട്ടുള്ളത് അത് പഴയ തലമുറക്ക് ഇപ്പോഴത്തെ പുതിയ ലിപികൾ വായിക്കാൻ തന്നെ വളരെയേറെ ബുദ്ധിമുട്ടാണ് പു പുതിയ അതുപോലെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് പഴയ ലിപി വായിക്കാനും അറിയത്തില്ല ഈ പഴയ ലിപി പുതിയ ലിപി ആയിട്ട് ഇത് വ്യത്യാസം ഉണ്ട് ഇപ്പം ലി ഇത് വാ വാ അക്ഷരങ്ങൾക്ക് വ്യത്യാസം വ്യത്യാസം വന്നിട്ടുണ്ട് അതുകൊണ്ട് പഴയ ആൾക്കാർക്ക് പുതിയത് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അത്രയൊക്കെയേ ഭാഷയെ പറ്റി അറിയത്തുള്ളൂ